ഹലോ നമസ്ക്കാരം എൻ്റെ പേര് ചിത്ര ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രൊഡക്റ്റിൻ്റെ പേര് ദ്രാവിഡ ഓർഗാനിക്ക് ഗ്ലുട്ടാതയോൺ ഈ ദ്രാവിഡ ഓര്ഗാനിക്ക് ഗ്ലുട്ടാതയോണെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഇൻസ്റ്റായിലൊരു പരസ്യം കണ്ടതിന് ശേഷമാണ് എൻ്റെ മുഖത്ത് നിറയെ പിമ്പിൾസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സം എല്ലാം ആയിരുന്നു പിമ്പിൾസ് വന്നതിൻ്റെ കറുത്ത പാടുകൾ ഒരുപാടുണ്ടായിരുന്നു എൻ്റെ മുഖത്ത് ഇത് ഞാൻ മേടിച്ചു ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത് ഈ പ്രോഡക്റ്റ് മേടിച്ചു നൂറ്റി നാൽപത് രൂപയാണ് ഇതിൻ്റെ വില ഈ പ്രോഡക്റ്റ് മേടിച്ച് ഞാൻ ആദ്യത്തെ ആ ആദ്യത്തെ ഒരാഴ്ച്ച ഞാനുപയോഗിച്ചു അന്നേരം എൻ്റെ മുഖത്തെ കറുത്തപാടുകളെല്ലാം മായുവാൻ തുടങ്ങി പിമ്പിൾസ് കുറേശ്ശെ വ പോകാൻ തൊടങ്ങി ഇത് ഉപയോഗിച്ച് രണ്ട് മാസത്തേന് ഞാൻ ഉപയിഗിച്ചപ്പം എൻ്റെ മുഖത്തെ ഫുൾ കറുത്ത പാടുകൾ മാറാനും മുഖം നല്ല ക്ലിയർ ആകാനും തുടങ്ങി മുഖം നല്ല വെട്ടിത്തിളങ്ങാൻ തുടങ്ങി നല്ല ക്ലിയർ സ്കിൻ ആയി എൻ്റെ മുഖം മുഖത്ത് നേര ടാൻ വന്ന് മുഖം വല്ലാതെ ആയിരുന്നു ഇരുന്നത് ഇതിന് ഇത് ഉപയോഗിച്ചതിന് ശേഷം മുഖം നന്നായി ക്ലിയർ ആകാൻ തുടങ്ങി ഇപ്പം എൻ്റെ കുട്ടികൾക്കും ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് ഡ്രൈ സ്കിന്നിന് ഈ ഗ്ലൂട്ടാതയോൺ വളരെ ഫലപ്രദമാണ്